ഏതൊക്കെ തര തരത്തിലുള്ള ചെടികളാണ് വളർത്തുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൂച്ചെടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം എല്ലാ ചെടികളും അതായത് വളർത്താൻ ശ്രമിക്കാറുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കാ അതായത് റോസാ ചെടികളൊക്കെ ഒരുപാട് മേടിക്കും അതായത് നമുക്ക് ടൗണിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപക്കും മുപ്പത് രൂപക്കൊക്കെ വേരുള്ള അതായത് വേരും പൂക്കളൊക്കെയുള്ള റോസാ ചെടി നമുക്ക് വീട്ടിലെങ്ങും നടാൻ വേണ്ടി കിട്ടും അത് അതേ പോലെ നമ്മൾ നല്ലവണ്ണം പരിപാലിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് നല്ലവണ്ണം നമുക്ക് വീട്ടിൽ നട്ട് വളർത്താൻ പറ്റും അതായത് നല്ലവണ്ണം പൂവ് ഉണ്ടാവുകയൊക്കെ ചെയ്യും നല്ല അത്യാവശ്യം നല്ല ചെടിയാണ് അത്പോലെ ജമന്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും ചെമ്പരത്തി പിന്നെ അങ്ങനെ പല പലതരം പൂച്ചെടികളും കിട്ടും പിന്നെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചെണ്ടുമല്ലിൻ്റെയൊക്കെ വിത്ത് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിലൊക്കെ കൊണ്ട് വെച്ചിണ്ടെങ്കിൽ അത് നല്ലവണ്ണം പിടിക്കും ചെയ്യും അത് സീസണൽ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളി ചെടികൾ ഏതൊക്കെ വളർത്തുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ വള്ളിച്ചെടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുല്ലേൻ്റെ വള്ളി ചെടിയുണ്ട് മുല്ല അല്ലാത്തതുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വള്ളിച്ചെടി അതായത് ഫ്രൂട്ടൊക്കെ നമുക്ക് പറയാകയാണെങ്കിൽ നമ്മൾ ഫാഷൻ ഫ്രൂട്ടൊക്കെ വള്ളിയിലുണ്ടാകുന്നത് ആണ് അതൊക്കെ വളർത്തും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികൾ പച്ചക്കറി ചെടികളൊക്കെയാണെങ്കിൽ നമുക്ക് കോവക്ക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വള്ളിച്ചെടികളായിട്ട് കൂട്ടാൻ പറ്റും